ഞാൻ ഏറ്റവും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് നല്ല മെലഡി സോങ്ങ്സും നല്ല ക്ലാസിക്കൽ മ്യൂസിക്കുമാണ് ദേവാസുരത്തിലെ പാട്ടുകൾ സിനിമ സിനിമപ്പാട്ട് സിനിമ പാട്ടുകളിൽ സെമിക്ലാസിക്കൽ മ്യൂസിക്കുകളും ഒക്കെ ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ദേവാസുരത്തിലെ ഓർക്കട്ടെ ആ അപ്പോൾ പാട്ടുകളൊക്കെ നമ്മൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്നു ഇപ്പോൾ തന്നെ ഹരിമുരളീരവം അത് കണക്ക് തന്നെ ഹേ രാമാ കാതരയായ് പാതിരയായ് ഹേരാമാ അതുപോലെയൊക്കെയുള്ള പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടുകുന്നുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ ക്ലാസിക്കൽ മ്യൂസിക്ക് ആയിക്കഴിഞ്ഞാൽ ഞാൻ പറയാം മെലഡി സോങ്ങ്സ് പിന്നെ നല്ല നല്ല നല്ല മെലഡി സോങ്ങ്സൊത്തിരി ഉണ്ടല്ലോ ആഷാഢം പാടുമ്പോൾ ആത്മാവിൻ ഗീതങ്ങൾ ആനന്ദ നൃത്തമാടുമ്പോൾ അതുപോലെത്തെ ഒക്കെയുള്ള പാട്ടുകളൊക്കെ ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെയുള്ള പാട്ടുകൾ നമുക്ക് സ്വാഭാവികമായിട്ടും കേൾക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന പുതിയ പുതിയ പാട്ടുകളും ഉണ്ട് ഒത്തിരി നമ്മുടെ പിന്നെ ജോസഫിലെ പാട്ടുകളൊക്കെ നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന പാട്ടുകളൊക്കെയാണ് അങ്ങനെയൊക്കെയുള്ള പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു പക്ഷേ എനിക്ക് ഡപ്പാംകുത്ത് പാട്ടുകളോട് ഒട്ടും ഇഷ്ടം അല്ല കാരണം എന്തൊക്കെയാണ് അവർ പറയുന്നതെന്നും അവർ കാണിക്കുന്നതെന്തൊക്കെയാണെന്നുപോലും നമുക്കൊന്നും മനസ്സിലാകാത്ത ചില പാട്ടുകളും ഉണ്ട് അച്ഛാ ചിറ്റമ്മ ചുട്ടത് മരുമോനിക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറച്ച് പാട്ടുകളൊക്കെ അതെന്താ പാട്ടാണെന്നുപോലും എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ അത് ഇഷ്ടപ്പെടുന്നവരും ഉണ്ട് അത് വേറെയൊരു രസം പിന്നെ ഞാൻ ഈ പാട്ടുകളൊക്കെ സ്റ്റോർ ചെയ്യുന്ന എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഞാൻ പ്രത്യേകിച്ചും എനിക്ക് ഇഷ്ടപ്പെടുന്നത് പിന്നെ നമ്മുടെ ഇത് പിന്നെ ആ ആത്മാവിൻ പുസ്തകത്താളിൽ ഒരു മയിൽപ്പീലി ആത്മാവിൻ പുസ്തകത്താളിൽ ഒരു മയിൽപ്പീലി ആ പാട്ട് ഇഷ്ടമാണ് ഒത്തിരി പിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മയ്ക്കായി ഇനിയൊരു സ്നേഹഗീതം ആ പാട്ടൊത്തിരി ഇഷ്ടമാണ് അങ്ങനെ കുറച്ച് പാട്ടുകളൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട് പിന്നെ പാട്ടുകൾ ശേഖരിക്കുന്ന കൂടുതലും എനിക്കിഷ്ടപ്പെടുന്ന പാട്ടുകൾ സെലക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ സി ഡി പാട്ടുകൾ നിർമ്മിക്കുന്ന കമ്പനി എടുക്കുന്നു സ്റ്റോർ സ്റ്റുഡിയോകളിലൊക്കെ പോയിട്ട് ആ പാട്ടിൻ്റെ സ്റ്റെ അടിച്ചുനോക്കും അതുപോലെതന്നെ വാദ്യസംഗീതങ്ങൾ ഭയങ്കര ഇഷ്ടമാണെനിക്ക് കാരണം ഈ വാദ്യസംഗീതങ്ങൾ കേട്ടുകൊണ്ടിരിക്കാനും ഭയങ്കര ഇഷ്ടമാണ് അതും പാട്ടിൻ്റെ തന്നെ വേറൊരു വശമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ പറയുകയാണെങ്കിൽ ഈ ഇംഗ്ലീഷ് സോങ്ങ്സ് ഹിന്ദി സോങ്ങ്സൊക്കെ ഇഷ്ടമാണ് കാരണം ആ പാട്ടിൻ്റെ അർത്ഥമൊന്നും അറിഞ്ഞിട്ടൊന്നും അല്ല പ്രത്യേകിച്ച് അപ്പോൾ ഇവ പാട്ടിൻ്റെ അർത്ഥം ഒന്നും അറിഞ്ഞിട്ടില്ല പക്ഷേ അതൊക്കെ കേട്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടമാണ് ഇപ്പോൾതന്നെ നമ്മളെ ടൈറ്റാനിക്കിലെ സോങ്ങ്സ് അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര നല്ല രസമായിട്ടൊക്കെ തോന്നാറുണ്ട് പിന്നെ കുച്ച് കുച്ച് ഹോത്താ ഹെ ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നല്ല രസമുണ്ട് പിന്നെ അങ്ങനെ ഒത്തിരി ഒക്കെ പാട്ട് തൂ മേരെ തൂ മേരെ തൂ മേരെ തൂ മേരെ തൂ മേരെ ഹീറോ നമ്പർ വൺ ആ പാട്ടൊക്കെ ഹിന്ദിയിൽ നല്ല സോങ്ങ് പൊളി പാട്ടാണ് അങ്ങനെ എല്ലാ ഭാഷയിലൊക്കെ ഇഷ്ടം പോലെ നല്ല പാട്ടുകളൊക്കെ നമുക്ക് ടച്ച് ചെയ്ത് ജസ്റ്റ് കേൾക്കാൻ രസമുള്ളതുകൊണ്ട് ചില പാട്ടുകൾ നമ്മളെ മനസ്സിനെ ഒത്തിരി ടച്ച് ചെയ്യുന്നു അപ്പോൾ ടച്ച് ഫീല് ചെയ്യുന്ന പാട്ടുകളുണ്ട് പറയാനാണെങ്കിൽ ജോസഫിലെ ഒരു പാട്ടുണ്ടല്ലോ അത് ഞാൻ മറന്നു പോയി ആ പാട്ട് നമുക്ക് ഒത്തിരി ഫീല് ചെയ്യുന്നൊരു പാട്ടാണ് പിന്നെ ആ ആ പിന്നെ അല്ലിയാമ്പൽ കടവിലന്ന് അരയ്ക്കുവെള്ളം ആ പാട്ട് നല്ലതാണ് അങ്ങനെ ഒത്തിരി പാട്ടുകളൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന പാട്ടുകളും ഒത്തിരി ഫീല് ചെയ്യുന്ന പാട്ടുകളുണ്ട് ഞാൻ പാട്ടുകൾ കേൾക്കാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്